മീൻ പിടിക്കുന്നതിന് പല രീതികൾ നമ്മുടെ നാടൻ പ്രദേശങ്ങളിൽ ഒരു പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും കൂടുതലായി മീൻ പിടിക്കുന്നതിന് ഉപയോഗിക്കുന്നത് വലയാണ് നദി നദീ തടങ്ങളിൽ നദിയുടെ ഇരുവശത്തേക്കും വലകൾ വിരിച്ച് വലകൾ വലിച്ച് കെട്ടി അതിൽ മീനിനെ ഉടക്കി പിടിക്കുന്ന ഒരു പ്രത്യേക രീതിയാണ് അത് കൂടാതെ മീൻ പിടിക്കുന്ന വേറെ ഒരു രീതിയാണ് വല വീശി മീൻ പിടിക്കുക അല്ലെങ്കിൽ വല വീശു വല ഉപയോഗിക്കുന്നുണ്ട് വീശു വല സാധാരണയായി സുഗമമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് വെള്ളത്തിൽ ഏത് ഭാഗത്തും വല വീശിയാൽ വല വീശി മീൻ പിടിക്കുന്ന ഒരു രീതി എളുപ്പമാണ് സൗകര്യപ്രദമാണ് എന്നാൽ മൂന്നാമത് ഒരു രീതി എന്നു പറയുന്നത് മടവലയാണ് മടവല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നീരൊഴുക്കിൻ്റെ എതിർ വശത്തേക്ക് വെള്ളം കറങ്ങി ഒഴുകുന്ന ഭാഗങ്ങളിലാണ് മടവല എന്ന വല ഉപയോഗിക്കുന്നത് അങ്ങനെ ആ രീതിയിലും മത്സ്യബന്ധനം സാധാരണ നടത്താറുണ്ട് അത് മൂന്നാമതായി നാലാമതായി ഉപയോഗിക്കുന്നത് കൂട് മീൻ പിടിക്കുന്ന് ഒരു കൂട് ഉപയോഗിക്കുന്നുണ്ട് ആ കൂട് ഉപയോഗിക്കുന്നത് നദികളിൽ നിന്നും അയൻ തോടുകളിലേക്ക് വെള്ളം ഉയരുന്ന കടന്നു വരുന്ന സാഹചര്യത്തിൽ ഉയരുന്ന സാഹചര്യത്തിൽ ആ ഭാഗത്ത് കൂട് വിരിച്ചാൽ ആ കൂടിനുള്ളിലേക്ക് നദികളിൽ നിന്നും ധാരാളം മത്സ്യങ്ങൾ ലഭിക്കാറുണ്ട് അങ്ങനെ കൂട് ഉപയോഗിച്ച് മീൻ പിടിക്കാറുണ്ട് അതും സീസണബിൾ ആണ് അതുപോലെ തന്നെ സമയം ചെലവഴിക്കാനും അത്യാവശ്യം മീൻ പിടിക്കാനും ഉപയോഗിക്കുന്നതാണ് ചൂണ്ട ചൂണ്ട ഉപയോഗിച്ചാൽ ചൂണ്ടയും പല തരത്തിലുണ്ട് നമ്മുടെ കൈ ചൂണ്ടയുണ്ട് ഏറു ചൂണ്ടയുണ്ട് പിന്നെ അതുപോലെ വെളളം പൊങ്ങുന്ന വരുന്ന സമയത്ത് വലിയ ചൂണ്ട ആ നദീ തീരം തീരങ്ങളെ ഭാഗത്ത് ഉപയോഗിച്ച് വാളകളെ പിടിക്കുന്ന രീതിയുണ്ട് അങ്ങനെ ചൂണ്ട തന്നെ മൂന്ന് രീതിയിൽ ഉപയോഗിക്കുന്നു അതിൽ കൈ ചൂണ്ടയെന്ന് പറയുന്നത് നമ്മൾ ആറ് നദീ തീരത്ത് അതിന് ഇരയെ കൊച്ച് ചൂണ്ടയിൽ ചേർത്ത് നദിയിലേക്ക് ഇട്ട് അവിടെ ഇരുന്ന് മീൻ പിടിക്കുന്ന ഒരു രീതിയാണ് കൈ ചൂണ്ട ഏറു ചൂണ്ട എന്ന് പറയുമ്പോൾ അതിലേക്ക് ആഹാര സാധനങ്ങൾ ഘടിപ്പിച്ച് നദിയുടെ ഏതാണ്ട് മധ്യ ഭാഗത്തേക്ക് ചൂണ്ട എറിഞ്ഞ് കൊടുക്കുകയാണ് വലിയ മീനാണ് സാധാരണ അങ്ങനെയുള്ള ചൂണ്ടകളിൽ കുടുങ്ങാറുള്ളത് പിന്നെ വാള ചൂണ്ടയെന്ന് പറയുന്നത് അത് വെള്ളം പൊങ്ങി കലങ്ങി കിടക്കുന്ന സമയത്ത് മറ്റ് ചെറിയ മത്സ്യങ്ങളെ ചൂണ്ടയിൽ ജീവനോടെ കോർത്ത് നദിയുടെ അരികിൽ അര തിട്ട ഭാഗത്ത് ഉപയോഗം ഇടുന്ന ഒരു രീതിയാണ് വലിയ വാള എന്ന് പറയുന്ന മത്സ്യമാണ് സാധാരണയായി അതിൽ കിട്ടാറുള്ളത് അങ്ങനെയാണ് ഇവിടെ നാട്ടിൻ പ്രദേശത്ത് നദീ തീരങ്ങളിൽ നിന്നും നദികളിൽ നിന്നും മീൻ പിടിക്കാറുള്ളത്